ഹലോ പൂ ഡീൽ ഫ്ലവർ സ്റ്റോഴ്സല്ലേ

ആ കല്ല്യാണമുണ്ടപ്പം നാളെ കഴിഞ്ഞത്തേയ്ക്കാണ് നാളെ കഴിഞ്ഞ് ഇത് ഈ പൂക്കളെവിടുന്നാണ് വരുന്നത് ബാംഗ്ലൂരു നിന്നാണോ ബാംഗ്ലൂരു നിന്നാണോ നല്ല ഫ്രഷായത് ആ ആ ഫ്രഷായിട്ട് കിട്ടുമല്ലോ രാവിലെ നമുക്കല്ലേ

ആ ആ ആ എനിക്ക് വണ്ടിയിൽ നമ്മുടെ കാറിൽ അലങ്കരിക്കാനായിട്ടുള്ളത് വേണം പിന്നെ അത് പിന്നെ ആ എനിക്കറിയാവുന്ന എനിക്ക് മൂന്ന് പെൺമക്കളാണ് അവർക്കെല്ലാം കൂടെ എട്ട് കൊച്ചുമക്കളുമൊക്കെയുണ്ട് അവരെല്ലാം തലേ ചൂടണമെങ്കിൽ എല്ലാം പെണ്ണുങ്ങളാ എല്ലാത്തിൻ്റെയും തലയിൽ എത്ര ആ ആ അപ്പോൾ അതിന് തലേൽ ചൂടണ കുറേ പൂക്കൾ എന്നാ മുല്ലപ്പൂവും റോസാപ്പൂവും ഇത് മുല്ലപ്പൂ വേണം റോസാപ്പൂക്കൾ ആ പല കളറുള്ളതുണ്ടല്ലോ ഞാൻ വരില്ല ആ ആ ആ ആ ആ ആ ആ ആ അപ്പം നമുക്കെല്ലാം കൂടെ മിക്സ് മിക്സ് ചെയ്ത് വേണം ആ ഒന്ന് കാറിൽ വെയ്ക്കുന്ന അതും

ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ മുഴത്തിനാണോ എങ്ങനെയാണിതിൻ്റെ ചാർജെന്ന് പറയുന്നേത് മുല്ലപ്പൂ ആ ആ മുല്ലപ്പൂ ആ ആ ആ ഏറ്റവും റീസണബിളായിട്ട് ചെയ്യണം കേട്ടോ അറിയാമല്ലോ നമ്മളെ പണ്ട് മുതലേ നമ്മളെപ്പോഴും കൂലിയുമായിട്ട് അത് കുഴപ്പം ഇല്ല അപ്പം നാളെ കഴിഞ്ഞ് രാവിലെ ഞാനവിടെയെത്തും ആ ആ ഇപ്പം പൂ അല്ല അന്നെടുത്ത് വെച്ചോ ഞാനൊരു ഏഴ് മണിയാവുമ്പഴത്തേക്ക് ഞാനല്ല എൻ്റ റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും ആ മിക്സ് കിലോയ്ക്കല്ലേ നമുക്ക് കിലോ കിലോയ്ക്കാണോ ഇതിന് വില വരുന്നത് അതോ ഇത് ആ റോസപ്പൂവിനൊക്കെയാണോ മറ്റേത് മുഴത്തിനായിരിക്കുമല്ലേ മുഴത്തിൻ്റെ ആ മുഴത്തിൻ്റെ അപ്പം ഇത് മൊത്തത്തിൽ നമുക്ക് എന്താ ഇത് വണ്ടിയെല്ലോട്ടിക്കുന്നതിനെത്രയാണെന്നുള്ളത് എനിക്കറിയത്തില്ല നിങ്ങൾക്കല്ലേ കൂടുതലറിയാവുന്നത് ഒരു ബൊക്ക പോലെ

ആ അത് നല്ല ചെയ്തോ നല്ലതെടുത്തോ നമുക്കേറ്റവും ഇന്ന് നമ്മൾ മൊത്തത്തിൽ നല്ല നീറ്റ് ആയിരിക്കണം നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാം ഇന്ന് കാര്യങ്ങൾ ആ ആ മുഴം പിന്നെ എന്താ പെണ്ണുങ്ങൾക്ക് തലയിലൊക്കെ ചൂടാനായിട്ടൊരു പത്ത് മുഴം ഇന്ന് വേണം കേട്ടോ ഈ മുല്ലപ്പൂ മുല്ലപ്പൂ ആ ആ അല്ല വേണ്ട ആ അപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ ഞാൻ വരുകയില്ല ഞാൻ തിരക്കായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ പ്രതിനിധി അവിടെ വരും നാളെ കഴിഞ്ഞ് രാവിലെ ഓക്കെ താങ്ക് യൂ വെരി മച്ച് ഓക്കെ